ജീവിതത്തിലേറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടേണ്ടൊരു സമയമെന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടം തന്നെയാണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ലോകത്താകമാനം അങ്ങനെ ഒരു മഹാമാരി വ്യാപിച്ചപ്പോൾ എല്ലാവരേം പോലെ നമ്മളുവതെ വളരെ അധികം വെല്ലുവിളി നേരിട്ടിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടുണ്ടാവുകാന്ന് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് ഇനി എന്ത്ന്ന് ആലോചിച്ചിരിക്കുന്നൊരു സമയമായിരുന്നു ഒരു ജോലിക്ക് പ്രവേശിക്കണമെന്നാലോചിച്ചു കൊണ്ട് നിൽക്കുന്നൊരു സമയത്തായിരുന്നു പെട്ടെന്നിങ്ങനെ അടച്ച് പൂട്ടലെല്ലാം വന്നത് ഇപ്പം വളരെ അധികം എന്താ പറയാ ഇനി എന്ത് ചെയ്യ്ന്ന് ആലോചിച്ചിട്ട് നമുക്കറിയാം എന്തായാലും മാറും പക്ഷേ എത്ര സമയത്തിനുള്ളിൽ മാറുന്നറിയില്ല ഇത് ഇങ്ങനെ പടർന്ന് പിടിച്ച് കൊണ്ടിരിക്കുന്നൊരു അസുഖമായത് കൊണ്ട് തന്നെ നമുക്ക് ഒരറിവുണ്ടായിരുന്നില്ല ഇതില് ഇനി ബാക്കി എന്തായിരിക്കും നാളെ എന്താണെന്നുള്ള ഒരു കാര്യത്തിന് ഒരറിവും ഉണ്ടായിരുന്നില്ല അപ്പം വളരെ അധികം എല്ലാവരെയും പോലെ വളരെ അധികം പ്രതിസന്ധി നേരിട്ടൊരു കാലമായിരുന്നു അത് പക്ഷേ ആ സമയത്താണ് ഒരു എന്താ ഒരു ഒരു എം സി എ കഴിഞ്ഞൊരു പോസ്റ്റ് ഗ്രാഡുവേറ്റ് എന്ന സ്ഥിതിയിൽ എനിക്കത് വച്ച് നോക്കുമ്പോൾ പല തരത്തിലുള്ള ഒരു എന്താ പറയാ ഡിജിറ്റൽ യുഗമായത് കൊണ്ട് തന്നെ നമ്മൾന് അത് വളരെ അധികം സഹായിച്ചു നമുക്കപ്പം ഒരു ഞാനൊരു അദ്ധ്യാപിക ആവാനാഗ്രഹിച്ചൊരാളാണ് അതുകൊണ്ട് തന്നെ നമുക്കതിന് വേണ്ടീട്ട് സർക്കാർ തന്നെ പല മാർഗ്ഗങ്ങളും കണ്ടുപിടിച്ചു തന്നു കാരണം ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും എല്ലാം നമുക്ക് അപ്പം അങ്ങനെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആ ഒരു പ്രതിസന്ധിന്നെനിക്ക് തരണം ചെയ്യാനായിട്ട് സാധിച്ചത് ആ ഇങ്ങനെയാണെന്നുണ്ട്ങ്കിലും നമ്മളതിൽ ജീവിക്കുവല്ലോന്നലോചിക്കുമ്പോൾ വളരെ അധികം സന്തോഷം തോന്നി അതിൽ വളരെ അധികം അഭിമാനം തോന്നുന്നു